ഞാൻ ആദ്യമായിട്ടാണ് പാസ്പോർട്ട് അപേക്ഷിക്കുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനായി എത്രയും പെട്ടെന്ന് പാസ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ പ്രക്രിയ അറിയാൻ അറിയുക എന്നുള്ളതാണ് എൻ്റെ സംശയം അതിനാവശ്യമായ രേഖകൾ എന്തെല്ലാമാണെന്ന് എനിക്കറിയേണ്ടതുണ്ട് പാസ്പോർട്ട് അപേക്ഷിക്കുമ്പോൾ ചോദിക്കാവുന്ന ചോദ്യങ്ങളും അതിനായുള്ള നടപടി ക്രമങ്ങളെക്കുറിച്ചും എനിക്ക് അറിയേണ്ടതുണ്ട് ഈ വർക്ക് ഷോപ്പിൽ വന്നാൽ എനിക്കതിന് സഹായിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ പാസ്പോർട്ട് അപേക്ഷിക്കാനായി ഞാൻ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തൊക്കെ രേഖകളാണ് ഞാൻ ആപ്ലിക്കേഷനിൽ കൊടുക്കാനുള്ളത് എന്തൊക്കെ രേഖകൾ അവരെന്നോട് ചോദിക്കുമെന്നുള്ളതിനെക്കുറിച്ചും എനിക്കറിയേണ്ടതായുണ്ട് പാസ്പോർട്ട് അപേക്ഷിക്കാനായി എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട് യോഗ്യത എന്താണ് യോഗ്യതാപരമായി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ അതിനുള്ള പ്രോസ്സസിംഗ് സമയമെത്രയാണ് വിസ എപ്പോഴേക്കാണ് എപ്പോഴേക്കോ ആയിരിക്കും എൻ്റെ കയ്യിലേക്ക് കിട്ടുക എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് സംശയമുള്ളതിനാൽ അത് ദൂരീകരിക്കാനാണ് ദൂരീകരിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുമോ